ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഈ ട്രാക്ടറോ അങ്ങനെയൊരു അങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴല്ലേ ഇറങ്ങുന്നത് കൊച്ച് ഈ കൊച്ചിലെയൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ കണ്ടുകൊണ്ട് ഈ കഴുതപ്പുറത്ത് ഈ ലോഡ് കയറ്റി കൊണ്ടുപോകുന്നത് ശബരിമല ഉണ്ടായതിനെ അപ്പം നൂറ്റി അല്ലെങ്കിൾ ആ നൂറ്റി നൂറ്റൊന്നാനകളോ അല്ലെങ്കിൽ നൂറ്റിപ്പതിനൊന്നാനകളോ കൊണ്ടാണ് ആ അമ്പലം ഉണ്ടാക്കിയതെന്നുവരെ കേട്ടിട്ടുണ്ട് ലോഡുകളൊക്കെ ഈ കല്ല് അമ്പലം ഉണ്ടാക്കാനുള്ള കല്ലുകളൊക്കെ കയറ്റിക്കൊണ്ട് വന്ന് ഇപ്പോഴാണ് ഇപ്പം ശബരിമലയിൻമേൽ ട്രാക്ടറ് കൊണ്ട്വരുന്നുണ്ട് പിന്നെ ഇപ്പം കുറേ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട് ദ ന്യുഹോള് ഉണ്ട് മഹേന്ത്ര ഇന്റോ ഫോമ എന്തുവാ എസ്കോട്സ് കാപ്റ്റന് റ്റാറ്റ ബെന്സ് അങ്ങനെ കുറേ കമ്പനികൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ കൊച്ചിലേ ഒന്നും ഇതൊന്നും ഇല്ല അന്ന് ആള്ക്കാർ ആള്ക്കാർ അല്ലെങ്കില് ഈ മൃഗങ്ങൾ അല്ലെങ്കിൽ കഴുത കഴുതയുണ്ട് ആനയുണ്ട് ഇവരേയും കൊണ്ടാണ് അന്നൊക്കെ ലോഡ് എടുപ്പിക്കുന്നത് അന്ന് അന്നത്തെ കാലത്തൊക്കെ ഇപ്പോഴല്ലേ ഈ ട്രാക്ടറൊക്കെ വന്നത് ഇപ്പം ഒന്നും വേണ്ട ഈ തടി കയറ്റുന്നതിന് പണ്ട് ആനയെ വിളിച്ച് കൊണ്ടാണ് തടി തടി വലിച്ച് കയറ്റുന്നതൊക്കെ അത് വണ്ടിയിലല്ല ആനയേയും കൊണ്ട് വലിപ്പിക്കും ഇത്ര കിലോമീറ്ററ് വലിപ്പിക്കും ഇപ്പോൾ എന്തുവാ ക്രെയിന് വന്നു ക്രെയിന് വന്നിട്ട് ഒന്ന് തൂക്കി എടുത്ത് വണ്ടിയുടെ മണ്ടക്ക് വെക്കുന്നു കൊണ്ടുപോകുന്നു ഇതൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പണ്ടു കാലത്തൊന്നും അത് ഒന്നുമില്ലായിരുന്നു ഇപ്പം കുറേ എന്താ പത്ത് പത്ത് പതിനൊന്നു കമ്പനി ഈ ടാറ്റ ഇത് അത് ടാറ്റ ഉള്പ്പെടെ ബെന്സ് ഉള്പ്പെടെ പല കമ്പനികളും ഇപ്പം ട്രാക്ടറ് എറക്കിയിട്ടുണ്ട് ഇപ്പം അവരായിട്ട് അതങ്ങ് നല്ല കാര്യങ്ങൾ തന്നെ ഇപ്പം മൃഗങ്ങളെ ദ്രോഹിക്കുന്നില്ലല്ലോ അതും നല്ല കാര്യങ്ങൾ തന്നെയാണ് വണ്ടിയുമായിട്ട് അത് ചെയ്തു പോകുന്നു അതു നല്ല കാര്യങ്ങൾ തന്നെയാണ് നെഗറ്റീവായിട്ട് അതിനകത്തൊന്നും പറയാനില്ല നല്ല കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോഴും കാണുന്നത് ഇപ്പം ശബരിമലയില് പക്ഷെ ഇപ്പോഴും ഈ കഴുത ഈ കഴുതപ്പുറത്ത് ഇപ്പോഴും ലോഡൊക്കെ കയറ്റി പോകുന്ന കാണുന്നുണ്ട് രണ്ട് സൈഡിലും മറ്റേ ഈ സഞ്ചി കെട്ടിത്തൂക്കി കൊണ്ടുപോവുന്നതൊക്കെ കാണുന്നുണ്ട്